ഹലോ ഇത് ഫയർ ട്രാക്ക് കൺസൾട്ടൻസി അല്ലെ എൻ്റെ പേര് സ്രീതു ഞാൻ കുറച്ച് മുമ്പ് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു ഒരു വാഹന സർവീസ് ആവിശ്യപ്പെട്ടിരുന്നു ഫ്രം കൊച്ചി ടു ട്രിവാൻഡ്രം ആക്ച്വലി വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് യാ ശരിയാണ് എന്നാലും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് ഏസി ആയിട്ടുള്ള വളരെ ഇക്യുപ്പിഡ് ആൻഡ് ഫെസിലിറ്റി ഉള്ള ഒരു കാറായിരുന്നു ബട്ട് നിങ്ങൾ തന്നത് അങ്ങനെ അല്ലായിരുന്നു സീറ്റ് സീറ്റൊക്കെ വളരെ മോശമായ രീതിയിലായിരുന്നു ആൻഡ് ഒബ്ബിയസ്ലി ഡ്രൈവറുടെ പെരുമാറ്റം വളരെ റൂഡായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം കാറ് ഞങ്ങൾ തട്ടി എടുക്കാൻ ശ്രമിച്ച പോലെയുള്ള പെരുമാറ്റമായിരുന്നു സൊ ബാഡ് ഫോർ യു ഞങ്ങൾക്ക് ഇത്രയും ഒരു വലിയ സ്ഥാപനം നടത്തുമ്പോൾ നിങ്ങളുടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ സേഫ്റ്റി അവരുടെ ഒരു കംഫേർട്ട് സോൺ എപ്പോഴും സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും മോശം ഞങ്ങൾ എത്രായിരം രൂപ നിങ്ങൾക്ക് തന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇത്രയ്ക്ക് കുറച്ചെങ്കിലും മാന്നേസ് നിങ്ങൾ കാണിക്കേണ്ടെ നോ നോ നോ എക്സ്പ്ലനേഷൻ നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് വേണമെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാം പക്ഷെ ഞങ്ങളുടെ മാന്യത പാലിച്ച് ഞങ്ങൾ അത് ചെയ്യുന്നില്ല ആൻഡ് ആഫ്റ്റർ ഓൾ ഞങ്ങൾക്ക് ഇനി തരാനുള്ള ബാലൻസ് എമൗണ്ട് തരുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരും നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾക്ക് പോവുകയാണെങ്കിൽ വി വിൽ ഗോ ഫോർ കേസ് ഇൻ കൺസ്യൂമർ കോട്ട് ഓക്കെ സൊ ഇനി ഒരിക്കലും ഇനി ഒരു കസ്റ്റമേഴ്സിന് നിങ്ങൾ ഇത്ര മോശം ഒരു അനുഭവം കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ യെസ് എസ് ഓക്കെ ഓക്കെ നോ നോ നോ മോർ എസ്പ്ലനേഷൻ ഓക്കെ താങ്ക് യു